എൻ്റെ പേര് പൗർണമി എന്നാണ് ഞാന് സ്വിഗ്ഗിയിൽ നിന്ന് ഒരു കെ എഫ് സി ഓഡർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ വീട് ഇവിടെ കൊടുപ്പന്നയിലാണ് ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഗസ്റ്റിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരുന്നു പത്ത് പത്ത് സെറ്റ് ആണ് വേണ്ടത് കെ എഫ് സി അത് വലിയ പാക്കറ്റായിട്ടാണ് ഫാമിലി പാക്കറ്റായിട്ടൊക്കെ ആണ് വേണ്ടത് എന്നു വച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്നായിട്ട് ഇങ്ങനെ ഓഡർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ പെട്ടെന്നുള്ള ഇത് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഓഡർ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ വീടിരിക്കുന്നത് കൊടുപ്പുന്നയിലാണ് അഡ്രസ്സ് രാമൻകരയിൽ നിന്ന് കൊടുപ്പുന്നിയിലോട്ട് വീട്ടുപേര് കോഴിപ്പള്ളിച്ചിറ എത്രയും പെട്ടെന്ന് ഒരു അരമണിക്കൂറിനകം എത്തിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഞാൻ ഓഡർ ചെയ്തിട്ടുണ്ട് പേയ്മെൻ്റെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു ഓഡർ നോക്കിയിട്ട് പെട്ടെന്ന് ഓഡർ ഐഡിയൊക്കെ കിട്ടിയിരുന്നു ഓഡർ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ സാധനം കെ എഫ് സി എത്തിക്കാനായിട്ട് നോക്കുക ഈ നിങ്ങളുടെ ഇതിന് ഒരുപാട് നന്ദി പെട്ടെന്ന് കോൾ അറ്റൻ്റ് ചെയ്തയിനും ഒക്കെ ഒത്തിരി നന്ദി ഈ നിങ്ങളുടെ ഫുഡിനെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു നല്ല ഫുഡാണ് ഞാൻ അന്ന് ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ കഴിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഡർ ചെയ്യുന്നത് അവിടെ വന്നായിരുന്നു കഴിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പം എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഓഡർ ചെയ്യുന്നത് വളരെ നല്ല റസ്റ്റോറൻറ്റാണ് എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത് ടൈമിങ്ങിനുള്ള ഡെലിവറിയും കാര്യങ്ങളും ഒക്കെയുണ്ട് നല്ല സ്പീഡാണ് എത്തി എത്തിക്കുന്ന മറ്റെ ഹോം ഡെലിവറി ആണെങ്കിലും നല്ല സ്പീഡാണ് അതുകൊണ്ടാണ് പെട്ടന്നുതന്നെ ഞങ്ങൾ നിങ്ങളുടെ റസ്റ്റോറൻ്റിലോട്ട് ഓഡർ ചെയ്തത് എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കേ താങ്ക് യൂ